നൃത്ത വിധികർത്താക്കൾ ചെയ്യുന്ന മുപ്പത്തൊന്ന് കാര്യങ്ങളുണ്ട് പുഞ്ചിരിക്കുക ഉയരത്തിൽ നിൽക്കുക ധീരത വീണ്ടെടുക്കൽ നിങ്ങളുടെ നമ്പർ ക്ലിയർ ടൈമിങ്ങ് ബാലൻസ് വൃത്തിയുള്ള കാൽപ്പാടുകൾ ഒരു ഫ്രെയിം ചിത്ര വരികൾ അടിസ്ഥാന കാര്യങ്ങൾ കുറവ് ഫ്ലീറ്റ് ശരീരതാളം വിനോദം വോയിസ് ഓണും ഓഫും ഫ്ലോർ ക്രാഫ്റ്റ് സ്റ്റാമിന നീക്കുക പങ്കാളിയുടെ അവബോധം ഫോക്കൽ പോയിൻറുകൾ മായ്ക്കുക നയിക്കുന്നതും പിന്തുടരുന്നതും സുഗമമായ സംക്രമങ്ങൾ ഊർജ്ജത്തിൻ്റെ വൈവിധ്യം ആം സ്റ്റൈലിങ്ങ് വൈവിധ്യം ആത്മവിശ്വാസം വോളിയം നൃത്തത്തിൻ്റെ സ്വഭാവം സംഗീതം നന്ദി പോയിൻറ് ഓഫ് വ്യൂ ഇങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും പല കാര്യങ്ങൾ അവർ അവിടെ ഇരുന്ന് വിധികർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഒരു ഇടർച്ച വരികയാണെങ്കിൽ അവർക്കത് വളരെ ത വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ് നൃത്ത കർത്താക്കൾക്കത് തോന്നുക അവർക്ക് പരിശീലനം ലഭിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ അധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു നൃത്തം ചെയ്യുമ്പോൾ പുഞ്ചിരിക്കുക അത് വളരെ അധികം പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെ ആണ് നൃത്തം ചെയ്യുന്നതിനിടയ്ക്കും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവർ നൃത്തം ചെയ്യണം അതുപോലെ തന്നെ ഉയരത്തിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഉയരമുള്ളവരാണോ അല്ലയോ എന്നത് പ്രശ്നമൊന്നുമില്ല എന്നാലും അവരുടെ ഭാവത്തിൽ പ്രവർത്തിക്കുന്ന മത്സരാർത്ഥി നർത്തകർക്ക് അവർ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഡാൻസ് ഫ്ലോറിൽ ഭീകരമായി കാണാൻ കഴിയും അതൊക്കെയാണ് അവർക്ക് വളരെ അധികം നോക്ക് നോക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ധീരത ഈട ഡാൻസ് കളിക്കുന്ന നൃത്തം ചെയ്യുന്ന ആൾക്ക് വളരെ അധികം ധീരതയോടെ തന്നെ ചെയ്യുവാനുള്ള കഴിവുണ്ടോ എന്ന് അവർ നോക്കും തറയിലും പുറത്തും തങ്ങളുടെ നൃത്ത പങ്കാളിയെ നയിക്കുന്ന നേതാക്കൾ നേതാവിനായി കാത്ത് നിൽക്കുന്നതിലൂടെയുള്ള ഡാൻസ് ഫ്ലോറിൽ നിന്ന് അവരെ നയിക്കാൻ അനുവദിക്കുന്നതിലൂടെയും അനുയായികൾ പൊരുത്തപ്പെടുന്നു ഇത് ധീരയാ ധീരതയാണ് ഫ്ലോർ നൃത്തം അതിനെ ജീവനോടെ നിലനിർത്തുന്നു അതുപോലെ തന്നെ ധീരതയോടെ കളിക്കുന്ന അവരുടെ നൃത്തം കാണുമ്പോൾ തന്നെ വിധികർത്താക്കൾക്ക് ഒരു ഊർജ്ജം കൊടുക്കുകയും ചെയ്യുന്നു മത്സരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് താഴെ വീഴുകയോ അതുപോലെ തന്നെ താഴെ വീ കാലിടറി താഴെ വീഴുമ്പോൾ തന്നെ അവരെ ചാടി എഴുനേൽക്കുവാനായിട്ട് നോക്കുക അതുപോലെ തന്നെ കളിച്ചോണ്ടിരുന്നതിനെ തുടർന്ന് അവർ കളിക്കുക അതുപോലെ തന്നെ ഒരു കയ്യടി നൃത്തം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യടി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അധികം ആത്മസംതൃപ്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ ആ ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അവരുടെ കഴിവുകളും അവരുടെ മേനി അഴകും അതുപോലെ തന്നെ അവരുടെ കണ്ണുകളും അതുപോലെയൊക്കെ ചലിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അധികം നോക്കുന്നു അതുപോലെ തന്നെ അവർക്ക് വെല്ലുവിളികളാവുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള പ്രാക്റ്റീസുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് അവർക്ക് അവർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് വളരെ അധികം വെല്ലുവിളി തന്നെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് വളരെ അധികം വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്തുണ അവർക്ക് പിന്നിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് അവർക്ക് വളരെ അധികം ആത്മസമൃദ്ധി കൊടുക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അവർക്ക് കൂടെ കൊണ്ട് പോകുവാനും അവരുടെ കഴിവുകൾ ഇനിയും വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുക ആൾക്കാർ മറ്റുള്ളവർ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരിക്കുന്നത് പറഞ്ഞ് പിന്തിരിപ്പിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ അത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയ് പറഞ്ഞ് കൊടുക്കുക അല്ലാതെ നിങ്ങളെ കൊണ്ടത് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് വളരെ അധികം മോശപ്പെട്ട ഒരു കാര്യം തന്നെ ആണ് അതുപോലെ തന്നെ പരിശീലനം നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ചാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ പ്ര അവർക്ക് നൃത്തം ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഡാൻസ് കളിക്കുമ്പോൾ നല്ല രീതിയിൽ കളിക്കുവാൻ അവർക്ക് സാധിക്കണം